വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഐതിഹാസിക കഥകളിലൊന്ന് പള്ളിക്കുന്ന് മാതാവിന്റെ കഥയാണ് പണ്ട് കുറിച്യർക്കായി മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ജപമാല സമർപ്പിച്ച് സമ്മാനമായി നൽകി എന്നാണ് ഈ കഥ പറയുന്നത് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പള്ളിക്കുന്ന് മാതാവിന്റെ പള്ളിയിൽ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ പള്ളിപ്പെരുന്നാളും നേർച്ച കാഴ്ചകളും ഇപ്പോഴും നിലനിന്ന് പോരുന്നു